എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയെന്നുള്ളത് റോസയാണ് റോസാ ചെടി പൂക്കൾ കാണാൻ നല്ല മനോഹരമാണ് അവ നമ്മൾ പെട്ടന്ന് പറിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നമ്മളുടെ ശരീരം വേദനിക്കും അതിൻ്റെ മുള്ളുകൾ വളരെ കൂർത്തതാണ് അവ അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും നമ്മൾ അത് പറിച്ചെടുക്കുന്നത് അതിൻ്റെ ഭംഗി കൊണ്ടാണ് അത്രക്കും ഭംഗിയുള്ള ഒരു പൂക്കളുള്ള ഒരു ചെടിയാണ് റോസാ

നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സമൂഹത്തിൽ ഒരു വിധ എല്ലാ ആളുകളും ഈ റോസാ ചെടിയെ ഇഷ്ടപ്പെടുന്നു അതിൻ്റെ പൂക്കൾ ഇഷ്ടപ്പെടുന്നു അത് വളരെയധികം മനോഹരമാണ് അത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്